ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കൂടുതലായിട്ടും അതായതിപ്പം കടല് കാര്യങ്ങളൊന്നും ഇവിടില്ല അപ്പം നമുക്ക് കൂടുതലായിട്ടും ചെമ്പല്ലി അങ്ങനത്തെ മീനുകളാണ് കൂടുതലായിട്ടും ഈ പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്ന് അല്ലെങ്കിൽ കുളങ്ങളിൽ നിന്നൊക്കെ അവര് എന്താ പറയുക ഇപ്പം ഉല്പാദിപ്പിച്ചിട്ട് നമ്മള് മേടിക്കുന്നത് പിന്നെ അല്ലാതെ വരുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കണ്ണൂര് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആണ് കൂടുതലായിട്ടും കടൽ മൽസ്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത് അതില് വരുന്നതില് ഏറ്റവും കൂടുതല് വിപു വിപുലമായിട്ട് കിട്ടുന്ന കുറെ മത്സ്യങ്ങളുണ്ട് അതായത് മത്തി ഇതാണ് മെയിനായിട്ട് നമ്മള് എന്താ പറയുക കേരളക്കാർക്ക് മെയിനായിട്ട് വേണ്ടത് മത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മത്സ്യമാണ് അപ്പോൾ അത് കൂടുതലായിട്ടും കിട്ടുന്നുണ്ട് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയല അങ്ങനത്തെ അങ്ങനെയുള്ള മീന് ഉണ്ട് പിന്നെ അതായത് കിളിമീൻ കിളിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെളുത്തിട്ട് അങ്ങനത്തെ മീനുകള് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നത്തല് നത്തല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മീനാണ് അപ്പോൾ അതും ആൾക്കാര് കൂടുതലായിട്ടും വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്തി തന്നെയാണ് അതിൽ നിന്ന് കുറച്ചും കൂടെ ആൾക്കാര് വാങ്ങുന്നത് അയല അങ്ങനത്തെ മീനുകളാണ് ഇതൊക്കെ വറത്തു കഴിഞ്ഞാലും കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇതിൻറ്റെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം മത്തിക്ക് ഒരു നൂറ്റി അറുപത് രൂപ കിലോയ്ക്ക് ഏകദേശം വരും പിന്നെ അയലയ്ക്ക് ഏകദേശം ആ റെയിറ്റ് തന്നെ വരും അപ്പം എല്ലാത്തിനും ഇപ്പം നത്തല് ആണെങ്കിലും ശരി ഏകദേശം ഒരു നൂറു രൂപ ആ റെയിഞ്ചിൽ തന്നെ വരും അതിപ്പം കടലിലെ മൽസ്യം കിട്ടുന്നതിനും കിട്ടാണ്ടിരിക്കുന്നതിനും അനുസരിച്ച് ഇവര് വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്